നമ്മുടെ പ്രദേശത്തിപ്പോൾ ഞാൻ പറയാണെൽ എൻ്റെ പ്രദേശത്തൊക്കെ കൂടുതലായിട്ടും കൃഷിപ്പണിക്കാരൊക്കെയാണ് കൂടുതൽ അപ്പോൾ അവർ കൂടുതലായിട്ടും കൃഷിയിൽ നേരിടുന്ന വെല്ലുവിളികളെന്നൊക്കെ പറയാനാണെങ്കിൽ ഈ കീ എന്താ പറയാ പ്രാണികൾ അങ്ങനത്തെ സാധനങ്ങളും പിന്നെ കാട്ടീന്ന് വരുന്ന മൃഗങ്ങളൊക്കെ വന്നിട്ട് കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് നെൽകൃഷി ഒക്കെയാകുമ്പോൾ ആന അങ്ങനത്തെ ഇതൊക്കെയാണ് പ്രശ്നം പിന്നെ കപ്പ ചേന ഇഞ്ചി അങ്ങനത്തെയൊക്കെയാണെങ്കിൽ കാട്ടുപന്നി അങ്ങനത്തെ മൃഗങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ഇതിൽ ദോഷമായിട്ടൊക്കെ ബാധിക്കുന്നത് പിന്നെ കൂടുതൽ ആൾക്കാർ വേറെ കുറെപേരൊക്കേന്നു പറയുമ്പം ഈ പശുനേം മൃഗ കോഴി അങ്ങനത്തേനെയൊക്കെ വളർത്തി ജീവിക്കുന്നവരാണ് വളരേ കുറച്ച് ആൾക്കാർ മാത്രമാണ് പുറത്തൊക്കെ പോയിട്ട് ജോലിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ കൃഷീ ഇപ്പോൾ പശൂനെയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ അവർക്ക് വേറെ കുറേ എന്താ പറയാ പശുവിന് വരുന്ന അസുഖങ്ങൾ അകിട് വീക്കം പിന്നെ കുളമ്പ് രോഗം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവർക്കൊക്കെ ഇതിനൊക്കെ എന്താ പറയാ ഇങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളോക്കെയാണ് കൃഷിപ്പണിക്കാരായാലും നമ്മുടെ തൊഴിൽ എന്താ പറയാ മൃഗങ്ങളെ നോക്കുന്നവരും വളർത്തുന്നവരൊക്കെ നേരിടുന്ന കുറേ പ്രശ്നങ്ങൾ ഇത്തരത്തിലാണ് ഞാൻ എന്താ പറയാ കണ്ടുവന്നിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ എൻ്റെ പ്രദേശത്തുള്ളത്